നഗരങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ എല്ലാ ഫെസിലിറ്റികളും പൊതുവേ കുറവായിട്ടാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള മൂത്രപ്പുരയുടെ സൗകര്യങ്ങൾ അത് ടീച്ചർമാർക്ക് മാത്രമാണ് പ്രത്യേകായിട്ടുള്ള ഒരു ടോയിലെറ്റ് സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളും കൊടുക്കുന്നുള്ളു കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ വലിയൊരു വരാന്തയിലങ്ങ് നിരന്ന് ഇരിക്കുക അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളാണ് കണ്ടുവരുന്നത് അതിന് ഒരു മാറ്റം വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ കുടിവെള്ളം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളങ്ങളായിരിക്കും അവിടെ സ്കൂളുകളിൽ കിട്ടുക അതൊന്ന് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പലതരം അസുഖങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും അവർക്കുള്ള പുസ്തകങ്ങളൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുക ചിലപ്പോൾ വാങ്ങാനൊന്നും പൈസ ഉണ്ടാവില്ല അവർക്ക് അത് കൊണ്ട് പഠിക്കാൻ അവർ പിന്നാക്കം പോവാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ട് അതിന് പൈസ സ്വരൂപിച്ച് ഒരു ഫണ്ട് ഒക്കെ ഉണ്ടാക്കി അതിന് ആ കുട്ടികളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടതാണ് അതിന് പ്രത്യേകിച്ച് പേരെൻ്റ് ടീച്ചേർസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാവും എല്ലാ സ്കൂളുകളിലും അവരൊക്കെ അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടതാണ് അതുപോലെ ഇരിക്കാനുള്ള മേശ കസേര ചി ല സ്കൂളുകളിൽ വെറും ബെഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടികൾ കയ്യിൽ വെച്ചിട്ട് ഒക്കെയാരിക്കും എഴുതുന്നുണ്ടാവുക അങ്ങനെയുള്ള കുട്ടികൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അതൊക്കെ അതിന് അവർക്കും ഒരു മേശ സൗകര്യം അല്ലെങ്കിൽ ഡെസ്കിൻ്റെ സൗകര്യം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ഭക്ഷണം ഉച്ച ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന കുട്ടികൾ ഉണ്ട് ഈ ഗ്രാമപ്രദേശത്തുള്ള സ്കൂളുകളിൽ അപ്പോൾ അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം നല്ല പോഷക സമൃദ്ധമായിട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടെ ഈ പി ടി എ ഒക്കെ മുന്നോട്ട് വന്നിട്ട് തീരുമാനിക്കേണ്ടതാണ് അതിന് കുറേ രാഷ്ട്രീയ പാർട്ടികളായാലും ടീച്ചേർസിൻ്റെ അസോസിയേഷനുകളായാലും എല്ലാവരും മുന്നിട്ടിറങ്ങേണ്ടതാണ്